ആ ഞാൻ എന്തൊക്കെ കേക്ക് ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ആ എല്ലാത്തിനും എങ്ങനെയാണ് റേറ്റ് അവിടെ ആ ആ ആ

ആ ആ ആ ഓക്കേ അതിനൊക്കെ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒരുപോലെ ആണോ അല്ലാണ്ടെങ്ങനെയാണ്

ആ ആ ആ

ആ ആ ആ എല്ലാമോ ആണല്ലേ നമുക്കെന്നാൽ വൈറ്റ് ഫോറെസ്റ്റ് മതി ഒരു കിലോ മതി ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടേ പിന്നെ ആനിവേഴ്സറിയാണ് ഫസ്റ്റ് ആനിവേഴ്സറിയാണ് എന്ന് എഴുതണം വേറെ ഐറ്റംസ് ഒന്നും വേണ്ട കേക്ക് മാത്രം മതി ആ ആ ആ അങ്ങനെ ഒന്നും വേണ്ട കേക്ക് മാത്രം മതി ആ ഞാൻ വൈകിയിട്ട് വരാം ഇന്ന് വൈകിയിട്ട് കിട്ടുമല്ലോ

അല്ല വന്നു വാങ്ങിച്ചുകൊളളാം ഓക്കെ ഒരു ഏഴ് മണി എട്ട് മണി ഒക്കെ ആവുമ്പോഴത്തേക്കും ആ ആ ആ ഓക്കേ ഓക്കേ